ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പരസ്യവഴി എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പരസ്യ വഴിയാണ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെ കൈയ്യിലും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇൻ്റർനെറ്റ് മുതലായവ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കൈയ്യിലും ഫോണുണ്ട് അപ്പോൾ നമ്മൾ സാമൂഹ്യമാധ്യമങ്ങള് എല്ലാവരും യൂസ് ചെയ്യുന്ന ആളുകൾ ആണ് നമ്മുടെ ചുറ്റുപാടുള്ളവര് അപ്പോൾ ഈ സാമൂഹ്യമാധ്യമങ്ങൾ വഴിയുള്ള പരസ്യപ്രചരണമായിരക്കും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം മുതലായവ വഴി നമ്മള് പരസ്യം കൊടുക്കുകയാണെങ്കില് അത് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധിക്കും കാരണം കുട്ടികൾ തൊട്ട് മുതിർന്ന ആളുകൾ വരെ ഈ സാമൂഹ്യ മാധ്യമങ്ങള് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത് അവരിലേക്ക് ഒരുപാട് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും അത് പിന്നെ പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ വളരെ ചെലവ് കുറഞ്ഞൊരു പരസ്യ പ്രചരണ രീതി കൂടെയാണ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെ ഉള്ള പരസ്യം അതുകൊണ്ടു തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പരസ്യ മാർഗം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉള്ള പരസ്യപ്രചരണം തന്നെ ആണ് അത് നമ്മുടെ ഇഷ്ടാനുസരണം കൊടുക്കാവുന്ന ഒരു പരസ്യ പ്രചരണം തന്നെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഉള്ള പരസ്യം